എൻ്റെ പ്രിയപ്പെട്ട കായിക ഇനം പന്തുകളിയാണ് അത് കളിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് പന്തു കളിക്കാറുണ്ട് പന്തുകളി കാണുന്നതും കളിക്കാനും വളരെ അധികം ഇഷ്ടപ്പെടുന്നു പന്തുകളിയിൽ ഞങ്ങൾക്ക് കുറേപേരെ ഒരുമിച്ചു ചേർത്ത് കളിക്കാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ അതുപോലെത്തന്നെയാണ് ലഹോറി കളികൾ നാടൻ കളികളായ തൊട്ടാപിടിത്തം അങ്ങനെയുള്ള കളികളൊക്കെ ശരീരത്തിനും വളരെയധികം ഉപകാരപ്രദമാണ് നമ്മുടെ ശരീരം നന്നായി വിയർക്കുകയും നല്ല രീതിയിൽ നമ്മുടെ ശരീര ക്ഷമത വർധിപ്പിക്കുന്നതിനും ഇങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുന്നത് വളരെയധികം നല്ലതാണ്